വളരെയധികം നർമ്മപ്രധാനമുള്ള സിനിമകൾ കാണാനാണ് എനിക്കേറ്റവും കൂടുതലിഷ്ടം കാരണം ഞാൻ വളരെയധികം ചിരിക്കാനാഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചെറിയ കാര്യങ്ങൾ കേട്ടാലും പെട്ടെന്ന് ചിരിക്കാൻ എനിക്ക് സാധിക്കും അങ്ങനെ ചിരിയുമായി ബന്ധപ്പെട്ട നർമ്മമേറിയ സിനിമകൾ കാണാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം അതിൽ പ്രത്യേകിച്ചും ദിലീപ് എന്ന നടൻ്റെ ഒരുപാട് സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അതിൽ ഒരുപാട് സിനിമകൾ രണ്ടും മൂന്നും നാലും തവണ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്ക് കാണാനും വളരെയധികം ഇഷ്ടമുള്ളതുമാണ് അപ്പോൾ അതിൽ ദിലീപിൻ്റെ തന്നെ സീ ഐ ഡീ മൂസ എന്ന സിനിമ ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പഴും ആ സിനിമ ടീ വിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണത് ചിരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിനിമകൾ കാണാനും എനിക്ക് വളരെ ഇഷ്ടമാണ് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ കാണുന്നതിനേക്കാൾ എനിക്ക് കൂടുതലിഷ്ടം ചിരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിരിക്കുന്ന സിനിമകൾ കാണാനാണ് അത് ഒറ്റയ്ക്കിരുന്നാണെങ്കിലും എല്ലാവരുടെ കൂടെയാണെങ്കിലും അങ്ങനെത്തെ സിനിമകൾ കാണാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇപ്പം എൻ്റെ കുട്ടികളും എന്നെപ്പോലെ തന്നെ ചിരിക്കുന്ന അങ്ങനെത്തെ സിനിമകൾ ഞാൻ ചെറുപ്പത്തിൽ കണ്ട എല്ലാ കോമഡീ സിനിമകളും നർമ്മപ്രധാനമുള്ള എല്ലാ സിനിമകളും അവരും ഇപ്പളും കാണുന്നു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ജഗതി ചേട്ടൻ്റെ തന്നെ എല്ലാ സിനിമകളും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട് അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും എന്നെ വളരെ അധികം രസിപ്പിച്ചിട്ടുള്ള സിനിമകളാണ്